ഇന്ത്യയുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതലായിട്ടും അരിയാഹാരമാണ് ചോറും കറികളുമാണ് കൂടുതലായിട്ടും സൗത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നോർത്ത് ഇന്ത്യൻസിലാണെങ്കില് കൂടുതലായിട്ടും ഗോതമ്പ് കൊണ്ടുള്ള സാധനങ്ങളും ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തികളോ കറികളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് ക്കെ സൗത്ത് ഇന്ത്യ ഇന്ത്യയെക്കുറിച്ച് സം ഓർക്ക് പറയുമ്പോള് ഭക്ഷണത്തില് കൂടുതല് വരുന്നത് ചോറുകളും പലതരത്തിലുള്ള കറികളുമാണ് അതിൽ ഏറ്റവും കൂടുതലും മസാലകൾ ഉപയോഗിക്കുന്നതും മലയാളികളാണ് മലയാളികളുടെ എല്ലാ ഭക്ഷണത്തിലും ഇറച്ചിക്കറികളിലാണെങ്കിലും മീൻ കറിയിലാണെങ്കിലും പച്ചക്കറികളാണേലും കൂടുതലായിട്ടും മലയാ മസാലകൾ ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ചോറ് കപ്പ മുതലായവ ഈ കപ്പപ്പുഴുക്കു പോലത്തെ കറിയും കപ്പപ്പുഴുക്കും ചോറുകളും പിന്നെ കപ്പപ്പുഴുക്കിൻ്റെ കൂടെ ഇറച്ചി കറിയോ മീൻകറിയോ കൂടുതൽ മസാലകള് എരിവും പുളിയൊക്കെ ചേർത്ത മീൻകറിയോ അല്ലെങ്കിൽ നല്ലതുപോലെ മസാല ചേർത്ത എറച്ചക്കറിയോ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും മലയാളികൾക്ക് പ്രിയം അതുപോലെ തന്നെ തമിഴ്നാട്ടുകാർക്കാണെങ്കിൽ ദോശയോ ഇഡലിയോ സാമ്പാറോ അങ്ങനെയുള്ള അങ്ങനെയുള്ള സാധനങ്ങളും അതോടുകൂടി അതിനോ അതോടുകൂടി ചമ്മന്തികളും സാമ്പാറുകളും ഒക്കെയാണ് തമിഴ്നാട്ടുകാര് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ വെള്ളരിയാണ് കേരളത്തിലാണെങ്കിൽ കൂടുതലായിട്ടും ചുവന്ന അരിയാണ് കൂടുതൽ ആളുകളുപയോഗിക്കുന്നത് പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട് കേരളത്തിൽ തന്നെയും കേരളത്തില് വെള്ളരി ഉപയോഗിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ് അതുപോലെ തന്നെ ചുവന്ന അരിയും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നു പിന്നെ കിഴങ്ങ് വർഗങ്ങളും കൂടുതലായിട്ടുപയോഗിക്കുന്നത് കേരളത്തിലാണ് കിഴ പലതരത്തിലുള്ള കിഴങ്ങുകളുണ്ട് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കപ്പ പിന്നെ കാച്ചില് ചേമ്പ് ചേന എല്ലാ വിഭവങ്ങളും എല്ലാ രീതിയിലുമുള്ള ഭക്ഷണ രീതികളും ഉപയോഗിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കൂടുതലായിട്ടും കേരളത്തിലെ ആളുകളാണ് കൂടുതലായിട്ടും പലതരത്തിലുള്ള വിഭവങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു കാലത്ത് പഴം ദോശ ഇഡലി പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ അപ്പം അപ്പം കടലക്കറി മുട്ടക്കറി പുട്ട് കടലക്കറി പിന്നെ അങ്ങനെ ദോശ സാമ്പാറ് ഇഡലി ചമ്മന്തി അങ്ങനെ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ കൂടുതലായിട്ടും ഉച്ചക്കാണെങ്കിൽ ചേ അരിയാഹാരം അവർക്ക് നിർബന്ധമാണ് അരിയാഹാരം എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലായിട്ടും ചുവന്ന ചോറും പിന്നെ നിറച്ച് മസാലകളോടു കൂടിയ കറികളുവായിരിക്കും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇതെന്ന് പറയുമ്പോള് മസാലകള് കൂടിയത് കറി എന്ന് പറയുമ്പോൾ ചിക്കൻ കറിയോ അല്ല മീൻ കറിയോ ആണ് മലയാളികൾക്ക് കൂടുതല് ബീഫോ ആണ് കൂടുതല് മലയാളികളിഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണങ്ങളില് കാലത്തും വൈകുന്നേരവും ഉച്ച ആയാലും ഈ രീതീയിലുള്ള ഭക്ഷണങ്ങൾ കൂടുതല് കാണും ഇറച്ചികറികളോ മീൻകറികളോ വൈകന്നേരങ്ങളിലാണെങ്കില് ഒത്തിരി ജീവിതശൈലി രോഗങ്ങൾ ഉള്ളത് കൊണ്ട് കൂടുതൽ പേരും അരി ആഹാരം ഒഴിവാക്കിയിട്ട് അതിന് പകരം എന്തെങ്കിലും ചപ്പാത്തിയോ പൊറോട്ടയോ എന്തെങ്കിലും കഴിക്കാനാണ് ഇപ്പം കൂടുതലിഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലും മലയാളികൾ വൈകുന്നേരങ്ങളിൽ ചപ്പാത്തിയോ ചപ്പാത്തിയോ പ് പൂരിയോ അങ്ങൻത്തെ സാധനങ്ങളാണ് കഴിക്കുന്നത് പക്ഷെ ഇതിലെല്ലാം മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ഫുഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ച് ഭക്ഷണപ്രിയരും വളരെയധികം നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നവരുമാണ് പിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുകയാണേൽ അവിടെ റൊട്ടികളോ ബ്രെഡുകളോ അങ്ങനെ ഗോതമ്പ് കൊണ്ടുള്ള പലതരത്തിലുള്ള വിഭവം ബ്രെഡുകളോ റൊട്ടികളോ ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെ അവർക്ക് പരിപ്പ് കറിയാണ് കൂടുതൽ താല്പര്യമെന്ന് തോന്നുന്നു നോർത്ത് ഇന്ത്യകാർക്ക് അവര് പരിപ്പ് കൊണ്ടുള്ള പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ പച്ചക്കറികള് കൂടുതലായിട്ട് കഴിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണത്തില് കൂടുതലായിട്ടും പരിപ്പ് കറിയായിരിക്കും ഉണ്ടാകുന്നത് അവരുടെ ഒരു പ്രത്യേക വിഭവമാണ് ബ്രഡ് പ് റൊട്ടിയും പരിപ്പ് കറിയും അതുപോലെ തന്നെ കർണാടകക്കാരുടെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് റാഗിയാണ് അവിടെ കൂടുതല് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പിന്നൊന്ന് പലതരത്തിലുള്ള ഇലക്കറികളുപയോഗിക്കുക റാഗി കൊണ്ടുള്ള ഭക്ഷണങ്ങള് പലതരത്തില് കാലത്തും ദോശയായിട്ടോ ഇഡലിയായിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രത്യേക പ്രത്യേക ഭക്ഷണങ്ങൾ ആയിട്ട് അവരുണ്ടാക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഒരു സാമ്പാറ് പോലത്തെ എല്ലാ വിധ പച്ചക്കറികളുവിട്ട് പിന്നെ ഇലക്കറികളും ഇട്ട പച്ചക്കറികളും അവരുണ്ടാക്കും അതുകൊണ്ട് തന്നെ അവർക്ക് റാഗിയാണ് കൂടുതൽ അവര് ഉപയോഗിക്കുന്നത് രാഗിയിലാണെങ്കിൽ നല്ല ഗുണങ്ങളുണ്ട് രാഗിയിൽ രക്തം കൂടുന്നതിനും ശരീരത്തില് വിളർച്ച ഒഴിവാക്കുന്നേനും ശരീരത്തിന് ആരോഗ്യം നല്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കും റാഗി നല്ലതാണ് മലയാളികളെ സംബന്ധിച്ച് ചോറും കൂടുതല് കഴിക്കുന്നത് തന്നെയാണ് അവർക്കിഷ്ടം കാലത്താണെങ്കില് കപ്പ പുഴുങ്ങിയത് ഹൈ റേഞ്ച് എന്നാ കേരളത്തിൽ തന്നെ ഇടുക്കി ഹൈ റേഞ്ചിൽ എന്ന സ്ഥലത്ത് കൂടുതലായിട്ടും കപ്പപ്പുഴുക്ക് ചക്കപ്പുഴുക്ക് എന്നിവയാണ് കേരളത്തില് ഒരു പ്രത്യേക വ്യ ഇഷ്ടപ്പെട്ട വിഭവമാണ് ചക്കപ്പുഴുക്ക് ചക്കപ്പുഴുക്കും ഇറച്ചിക്കറിയും കഴിക്കുവാൻ മലയാളികൾക്ക് വളരെ ഇഷ്ടമാണ് അവർ വൈകുന്നേരങ്ങളിലോ ഉച്ചകളിലോ ചക്കപ്പുഴക്കും മീൻകറിയും ഉണ്ടാക്കി കഴിക്കുന്നതിൽ വളരെ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നതിലും വളരെ താല്പര്യപ്പെടുന്ന ഒരാൾക്കാരാണ് ഹൈ റേഞ്ചുകാര് അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണത്തില് ചക്കപ്പുഴുക്ക് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു